എനിക്കൊരു ചേട്ടനാണ് ഉള്ളത് ഞങ്ങൾ തമ്മിൽ പ്രത്യേകിച്ച് കാണുമ്പം സാമ്യതകളൊന്നുമില്ല കുറച്ചെങ്കിലും സാമ്യതകളുള്ളത് ഞങ്ങളുടെ മുടീലാണ് പക്ഷേ എന്നാലും മൊത്തത്തിൽ സാമ്യം ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല കാരണം എൻ്റെ എൻ്റെ ഞങ്ങളെ രണ്ട് പേർടേം ചുരുണ്ട മുടിയാണ് പക്ഷേ ചേട്ടൻ്റെ എൻറ്റേക്കാളും കൂടുതൽ എൻ്റെ മുടിയാണ് ചുരുണ്ടിരിക്കുന്നത് ചേട്ടൻ്റെ കുറച്ചൂടെ ഒരു വേവി കേളാണ് എൻ്റെ ഭയങ്കര ലൈക് സ്പ്രിംങ് പോലൊരു കേൾ മുടിയാണ് അതായത് ചുരുണ്ട മുടിയാണ് വേറെ സാമ്യതാന്ന് പറയാൻ പ്രത്യേകിച്ച് സ്വഭാവത്തിലോ വേറെ ഒന്നിലും തന്നെ സാമ്യതകളില്ല എന്നെക്കാളും വളരെ മെലിഞ്ഞ ഒരാൾ ആളാണ് ചേട്ടൻ ഞാൻ കുറച്ചൂടെ തടിച്ചിട്ടുള്ള പ പ്രകൃതമുള്ള ത തടിച്ചൊരു പ്രകൃതമുള്ള ആളാണ്